ഹലോ ആ ആ

അത് ഇവിടെ ഇപ്പോൾ ഇല്ല വേറെ ഒരു കുട്ടി എടുത്തുകൊണ്ടുപോയി അതിനി കുറച്ച് ദിവസമായി അത് അല്ലാതെ വേറെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഞാൻ എന്നാൽ ആ കുട്ടിയെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കട്ടെ പിന്നെ അത് കിട്ടുമോ എന്ന് അല്ലാതെ നമ്മളിപ്പം പ്രത്യേകം പറയാൻ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ കുട്ടിയോട് വിളിച്ച് ചോദിക്കണ്ടേ പിന്നെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ അതിനുള്ള ഫൈൻ മേടിക്കും ആ ഏഴ് ദിവസം

അതിന് നമ്മൾ അഞ്ഞൂറ് രൂപ ഫൈൻ മേടിക്കുന്നുണ്ട് ഒരു ആ നമ്മുടെ ഒരു പുസ്തകം പോയിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് രൂപ ഫൈൻ മേടിക്കുന്നുണ്ട് അത് നമ്മൾ സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഫൈനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്

ഞാൻ കുട്ടിയോട് സംസാരിക്കട്ടെ അത് വായിച്ച് കഴിഞ്ഞില്ലായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും വിളിച്ചൊന്ന് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറയാം

ആ ഇത് അതുശരി ആ വേറെ പുസ്തകം നല്ല പുസ്തകങ്ങളൊക്കെ വേറെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട് അന്നേരം വേണ്ട ഇത് മാത്രം മതി ആ ഞാൻ ആ കുട്ടിയെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കട്ടെ നമ്മൾ ഏഴ് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് കൊച്ച് കൊണ്ട് പോയിട്ട് രണ്ടു ദിവസമേ ആയുള്ളൂ അന്നേരം പിന്നെ നമുക്ക് അത് വിളിച്ച് ചോദിക്കുമ്പം അതിനൊരു ബുദ്ധിമുട്ടില്ലേ ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് ആ ഞാൻ പറഞ്ഞ് നോക്കാം പറഞ്ഞ് നോക്കാം പിന്നെ വേറെ പുസ്തകങ്ങളൊന്നും വേണ്ട വേറെ നല്ല പുസ്തകങ്ങളൊക്കെ ഒരുപാടുണ്ട്

അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ നോക്കണ്ടേ അതോ ഇവിടുന്ന് തന്നെ കിട്ടണമെന്ന് നിർബന്ധം ആണോ

ആ നമ്മുടെ ലൈബ്രറിയിൽ പുസ്തകം ഉണ്ടായിരുന്നു പക്ഷേ വേറൊരു കുട്ടി ഇത് കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് ഞാൻ അതിനെ ഒന്ന് വിളിച്ച് നോക്കി സംസാരിച്ചിട്ട് നമുക്കും അതിനോട് ഒരുപാട് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് ദിവസമേ ആയുള്ളൂ കൊണ്ടുപോയിട്ടേ ഏഴ് ദിവസം വരെ നമുക്ക് കയ്യിൽ വയ്ക്കാനുള്ള നിയമമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ പിന്നെ ഞാൻ വിളിക്കും ആ ആ ഓക്കെ ശരി ഓക്കെ താങ്ക് യു